ഇപ്പൊൾ ഞാൻ നോക്കുമ്പോൾ നമുക്ക് കൃഷി അ അത്യാവശ്യം നല്ലൊരു വരുമാന മാർഗ്ഗമാണ് നമ്മൾ നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ അത് ഒരു എന്താ പറയുക് കാപ്പി എ കാപ്പി കുരുമുളക് അടയ്ക്ക അങ്ങനെ

തോട്ടങ്ങളിൽ വച്ച് കൊടുക്കുവാണെങ്കിൽ ഇപ്പം അത്യാവശ്യം വില ഉള്ളത് കൊണ്ട് നമുക്കതൊരു വരുമാന മാർഗ്ഗം കൂടിയാണത് നമ്മുക്കതിലോട്ട് എല്ലാ ദിവസവും അതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അതിൽ നമ്മള് പണിയെടുക്കുമ്പോൾ അതിൽ നല്ല വളർച്ചയും കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെയൊരു സന്തോഷം തോന്നും ഒന്നതിലൊരു വിളവെടുക്കുമ്പോളും അതിനെ പരിപാലിച്ച് അവസാനം നമ്മക്കതിലൊരു വിളവും കിട്ടും അതിനൊരു നമ്മുക്കൊരു എന്താ പറയുക ഒരു അത്യാവശ്യം ഒരു ഇൻകവും കിട്ടുംനമുക്ക് അപ്പൊൾ നമ്മുക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസിന് തന്നെ ഒരു സന്തോഷമാണത് വേറൊരു പുറത്ത് പോകണ്ട ഒരാവശ്യം വരുന്നില്ല നമ്മുടെ തോട്ടത്തിൽ തന്നെ നമ്മള് ചെയ്യുന്നു അതു നമ്മള് വിളവെടുക്കുന്നു അതിൽ നമ്മള് ഒരു മൂല്യം കാണുന്നു അപ്പം നമുക്ക് തന്നെ അതിൻ്റെരു കുറച്ച് നമുക്ക് ഒരു സന്തോഷവും മനസിന് വേറൊരാളുടെ കയ്യോ കാലോ പിടിക്കാണ്ട് തന്നെ നമ്മള് സ്വന്തം കൃഷി ചെയ്ത് സ്വന്തം വിളവെടുക്കുമ്പോൾ തന്നെ നമ്മക്കൊരു മനസ്സിനൊരു സുഖം കിട്ടും അതുകൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ട് സജീവമായി ഇറങ്ങാമെന്ന് ചിന്തിച്ചത്